ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒട്ടുമിക്കപ്പോഴും പഠനത്തെക്കാള് മുൻഗണന കൊടുക്കുന്നത് മാർക്കിനാണ് മാർക്ക് തന്നെയാണ് ഇതില് പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ മറ്റ് രാജ്യങ്ങളില് പ്രത്യേകിച്ച് ഫിൻലാൻഡ് പോലെയുള്ളയിടത്ത് ഈ വിദ്യാർത്ഥികളുടെ വ്യക്തിഗത കഴിവുകളും ആസ്വാദനങ്ങളും പരിഗണിച്ചിട്ടാണ് അവിടെയുള്ള പഠനരീതി അതുപോലെ തന്നെ ഇവിടെയും വേണമെന്നാണ് എന്റെയൊരു അഭിപ്രായം പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം കൂടുതൽ പ്രായോഗികവും സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കാനും സഹായിക്കുന്നതായിരിക്കണം അതുകൂടിയാണെങ്കില് നമ്മുടെ കേരളത്തിലെ വിദ്യാഭാസ സ്ഥാപനങ്ങളെല്ലാം ഒട്ടുമിക്കപ്പോഴും ചിലതെല്ലാം കുറച്ചുംകൂടി പുരോഗമിച്ചിരിക്കും ആ ഇതുതന്നെയാണ് കൂടുതലായിട്ടും മെച്ചപ്പെടുത്തേണ്ടത് പിന്നെ എല്ലാവരുടെയും കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക പരമാവധി അതിപ്പോള് സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും എന്തായാലും എങ്ങനെയായാലുമൊന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് കുട്ടികളെ നമ്മുടെ ഫ്രണ്ട്സാക്കിയെടുക്കുക അതുംകൂടി മെച്ചപ്പെട്ടാല് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആ എല്ലാ സ്ഥലത്തെയും ഈ പഠനരീതിയെല്ലാം മെച്ചപ്പെട്ട് വരും